പിസ ഒരു പാരമ്പര്യ ഭക്ഷണമായിട്ട് പറയാം പുറം രാജ്യങ്ങളിൽ അതൊരു പാരമ്പര്യ ഭക്ഷണമാണ് നമ്മുടെ ഇന്ത്യയിൽ അധികമല്ല പുറത്ത് ഉള്ള ഇതുകളിൽ ഇച്ചിരി പാരമ്പര്യമായിട്ട് എപ്പോഴും എല്ലാ ജെനറേഷൻസും കഴിക്കണൊരു ഫുഡാണ് അതിന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് അതുണ്ടാക്കണ വിധം എങ്ങനെയാണെന്ന് വച്ചാൽ നമ്മൾക്ക് മൈദ കൊണ്ടുണ്ടാക്കാം നമുക്കത് ഹെൽത്തി വേണമെങ്കിൽ നമുക്കത് ഗോതമ്പുപൊടികൊണ്ടും ഉണ്ടാക്കാം ഞാനുണ്ടാക്കിയത് മൈദകൊണ്ടാണ് മൈദയും ഈസ്റ്റും വെള്ളവും ഉപ്പുമിട്ട് മാവ് പരിവം നല്ലപോലെ മയത്തിൽ കുഴച്ചെടുക്കും അത് കുഴച്ചെടുക്കുമ്പോൾ നല്ല ശക്തിയിൽ കുഴച്ച് നല്ല പശമയമുള്ള മാവാക്കി എടുക്കണം എന്നിട്ടത് നമ്മൾ കുറേ നേരത്തേക്ക് നമ്മളത് മാറ്റി വെക്കണം അപ്പം അത് ഈസ്റ്റിൻ്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വച്ചാൽ ഈസ്റ്റ് ഇട്ടിരിക്കണ കാരണമാണ് മാവ് നല്ലപോലെ പൊന്തി വന്ന് നല്ല എയറി ആയിട്ടിരിക്കും അപ്പോൾ അതുപോലെ ആയിട്ടിരുന്നാലാണ് എത്ര മാത്രം അതുപോലെ ആവണോ അത്ര രുചികരമാവുക എന്നാണെനിക്ക് തോന്നിയിട്ടുള്ളത് എന്നിട്ട് ആ മാവ് നമ്മളെടുത്ത് ഒരു പരന്ന പാത്രത്തിൽ നമ്മൾ മാവിങ്ങനെ പരത്തിക്കൊടുക്കണം ഒരു വട്ടത്തിൽ പരത്തി എടുക്കണം എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് ടുമാറ്റോ സോസാണ് പൊതുവെ എല്ലായിടത്തും ഇട്ട് പുറം രാജ്യങ്ങളിലായാലും ടുമാറ്റോ സോസോ വൈറ്റ് സോസൊക്കെ നമ്മളിങ്ങനെ ഇടും പൊതുവേ ടൊമാറ്റോ സോസാണിടുക അത് നമ്മൾക്ക് വീട്ടിലുണ്ടാക്കാം അല്ലെങ്കിൽ നമുക്കത് റെഡിമേയ്ഡായിട്ട് മേടിക്കാങ്കിട്ടും അപ്പം നമ്മളത് നല്ലപോലെ അതിൻറെ മേലെ ചുറ്റിലും ഇട്ടു കൊടുക്കണം ചുറ്റിനും അല്ല ഫുള്ളായിട്ട് നമ്മൾ ആ ടുമാറ്റോ സോസ്സ് പരത്തി ഇട്ടു കൊടുക്കണം എന്നിട്ട് നമുക്കതിൻ്റെ അകത്ത് വേണ്ട ചേരുവകൾ ചേർക്കാം ലൈക്ക് ചിക്കൻ നോൺവെജാണോ വേണ്ടതെന്ന് വച്ചാൽ ചിക്കനോ ബീഫോ പോർക്കോ എന്തോ ചേർക്കാം വെജിറ്റേറിയനാണോ വേണ്ടതെന്ന് വച്ചാൽ പിസ്സ പനീർ വെജ് വെജിറ്റബിൾസൊക്കെ കട്ടു ചെയ്ത് കട്ടു ചെയ്തിടാം പിന്നെ മെയ്നായിട്ട് പുറത്തെത്തെ ആൾക്കാരൊക്കെ പിസയിലിടണത് ചീസ്സാണ് അവർ കുറേ ചീസ്സ് കഴിക്കുന്നൊരു ആൾക്കാരാണ് പുറത്തത്തെ ആൾക്കാർ ഇന്ത്യക്കാരെ വച്ച് നോക്കുമ്പോൾ പുറത്തത്തെ പ്രത്യേകിച്ച് അമേരിക്കയിലേത്തവർ സ്ഥലങ്ങളിലും ചീസ്സ് എന്തേ മെയ്നായിട്ട് കഴിയ്ക്കണ സാധനമാണ് സോ അതിനകത്ത് ഓരോരോ കുറേ തരം വിവിധ വിവിധ ചീസ്സുകൾ തന്നെയുണ്ട് അപ്പോൾ അതൊക്കെ ഏതാണ് ഇഷ്ടം എന്ന് വച്ചാലത് നമ്മൾ നല്ലപോലെ ഇട്ടു കൊടുത്ത് നമ്മൾ ഓവനിൽ അത് ബേയ്ക്ക് ചെയ്താണെടുക്കണത് ബെയ്ക്ക് ചെയ്തെടുത്താൽ നമുക്കത് നല്ലൊരു പിസ്സയായിട്ട് കിട്ടും ഞാനത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഞാൻ പുറത്തേത്തെ ഫുഡിൽ നിന്നും എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഫുഡുമുണ്ട് ഇഷ്ടപ്പെട്ടുള്ള ഫുഡൊക്കെ പിസ്സയാണ് സോ അതു വീട്ടിൽ ഞാനുണ്ടാക്കി നോക്കിയിട്ടുള്ളതാണ് പുറത്തേത്തൊരു പാരമ്പര്യത്തിൽ വരണൊരു ഫുഡാണ് പിസ്സ അങ്ങനെ ഓരോ രാജ്യത്തിലും ഓരോരോ പാരമ്പര്യ ഫുഡുകളുണ്ട് പിന്നെ ചൈനയിലിങ്ങനെ റാമെൻ കൊറിയയിലങ്ങനെ ഇങ്ങനെ ഓരോരോ ഫുഡുകളുണ്ട് പാരമ്പര്യമായിട്ട് സൂഷ്യക്കെ ഇവിടെ ഒരു പാരമ്പര്യ ഫുഡ് തന്നെയാണ്

നമുക്ക് ഉണ്ടാക്കി നോക്കാം പഷെ ഞാനതൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിസ്സ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് നല്ല പോലെ ഈസി ആയിട്ടുണ്ടാക്കുകയും ചെയ്യാം